എൻ്റെ പ്രദേശത്ത് വീടിനടുത്തും എല്ലാ എല്ലാവരും വെള്ളം കുടിക്കാനും കുളിക്കാനും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നത് ഈ കബനി പുഴയിലെ വെള്ളവാണ് അപ്പം അവിടെനിന്ന് ഒരു പദ്ധതി വഴിയാണ് വെള്ളം വീടുകളിലേക്ക് എത്തിക്കുന്നത് ആ ഒരു പദ്ധതിയിലൂടെ വെള്ളം എത്തിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് പുഴയിലെ വെള്ളം ആയതുകൊണ്ട് അതിന് അതിൻറ്റേതായ വൃത്തിക്കുറവുകളുണ്ട് ആ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും പുഴയിലെ ഇപ്പോൾ നല്ല രീതിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ വൃത്തിയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പോം അതിനെപ്പറ്റി അതായത് അതിൻ്റെ വൃത്തി ഉള്ള രീതി കുറച്ചും കൂടെ നല്ല വൃത്തിക്ക് ആ വെള്ളം ഉപയോഗിക്കുന്നവരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂ നല്ലതായി തോന്നുക കാരണം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത്തിലൂടെ പല രീതിയിലുള്ള അസുഖങ്ങളും വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് സത്യത്തിൽ വെള്ളം ഒരു മരുന്നാണ് എല്ലാവർക്കും അസുഖങ്ങൾ മാറാൻ അസുഖങ്ങൾ പരമാവധി വരാതിരിക്കാൻ നമ്മൾ വെള്ളം കുടിച്ചാൽ തന്നെ പരമാവധി അസുഖങ്ങൾ ഒഴിവാകാറുണ്ട് അപ്പം അതെ വെള്ളം കുടിച്ച് തന്നെ ആ അസുഖങ്ങൾ വരുന്നത് തികച്ചും നല്ല കാര്യമല്ലല്ലോ അപ്പോൾ പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തീർച്ചയായിട്ടും അതിൻ്റെ വെള്ളം വൃ കുറച്ചും കൂടെ വൃത്തിക്ക് എല്ലാവർക്കും ലഭ്യമാക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് അതുകൊണ്ടുതന്നെ അതിൻ്റെ വൃത്തിയാക്കുന്ന രീതികൾ കൂട്ടുകയും കുറച്ചും കൂടെ വൃത്തിയുള്ള വെള്ളം എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ മെച്ചപ്പെടുത്താൻ ക ഇതിന് പഞ്ചായത്തുകൾ മുന്നോട്ട് ഇറങ്ങി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് വേണ്ടതായ നടപടികൾ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം